ഹലോ ഞാനേയ് പതിനഞ്ച് മിനിറ്റ് മുന്നിട്ടൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ തന്നയല്ലേ ഫോണെടുത്തത് ഇതുവരെ പക്ഷെ എത്തിയിട്ടില്ലല്ലോ എനിക്കിപ്പം ഞാൻ വൈക്കത്ത് ഇപ്പം സ്റ്റാൻ്റിലാണ് നിൽക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് പാമ്പാടിക്ക് പോകേണ്ട ഉണ്ടായിരുന്നു അപ്പം ചേട്ടന് എത്ര മണിക്ക് വരാൻ പറ്റും ഞാനിപ്പോൾ കുറച്ചു സമയമായിട്ട് ഇപ്പോൾത്തന്നെ പത്തു മിനിറ്റായിട്ട് ഞാനിവിടെ വെയ്റ്റ് ചെയ്യുകയാണ് ഇതുവരെ ഒരു റെസ്പോൺസും വന്നിട്ടില്ല അവിടെ ബ്ലോക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതോ ഇനിയും ലെയ്റ്റ് ആകുമോ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലെയ്റ്റ് ആവുന്നത് അതു ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഇത് ബുക്ക് ചെയ്യേണ്ടി വരുമോ ഇപ്പം എനിക്കെന്തായാലും എത്രയും പെട്ടെന്നെനിക്ക് വീട്ടിലെത്തിയെ പറ്റുള്ളു പാമ്പാടിക്ക് പോകണം എന്തായാലും ഇവിടെ നിന്ന് ഒരു ഒര് മണിക്കൂറെങ്കിലും പാമ്പാടിക്ക് മിനിമം എടുക്കും അപ്പോൾ ചേട്ടൻ എപ്പോൾ എത്താൻ പറ്റും തന്നെയല്ല അരമണിക്കൂറിനുള്ളിൽ വരുമോ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ എന്തായി ഞാൻ ഇനി വെയ്റ്റ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ട്രാവൽ ഫെസിലിറ്റി നോക്കണോ അത് ഒന്നു പറയാമോ